എൻ്റെ പ്രദേശത്ത് ഒരു ബിസിനസ്സ് പ്രവർത്തനം നടത്താനായിട്ട് ഉപകരിക്കുന്ന ഒരു പ്രകൃതി വിഭവം എന്നുപറയുന്നത് കൃഷി തന്നെയാണ് വയലുകളും പാടങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരു ചെറിയൊരു നാട്ടുമ്പുറം ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കൃഷി സമയത്ത് നെല്ലുകളായിക്കോട്ടെ അങ്ങനെയുള്ള കൃഷികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥലമാണ് ഞങ്ങളത് അതുപോലെതന്നെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ്സ് തുടങ്ങുക എന്നുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്നു പറയണത് ഇപ്പോൾ ചെറിയ എന്നു വെച്ചാൽ ഔഷധത്വമായ വിഭവങ്ങൾ എന്നു വെച്ചാൽ ഇപ്പം ചീര എന്നു വെച്ചൽ ശരീരത്തിന് ഉപകാരപ്പെടുന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളുടെ സാധനങ്ങൾ നമുക്ക് ബിസിനസ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുംകൂടി എന്നു വെച്ചാൽ ആൾക്കാർ അതിൻറെ പ്രാധാന്യം അറിയുകയും വേണം അത് വേടിക്കാൻ അവർ മു മുൻഗണന നൽകുകയും വേണം എങ്കിൽ അതൊരു നല്ലൊരു ബിസിനസ്സായിട്ട് മുന്നോട്ടു വരാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ തലമുറ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ സ്കിൻ എന്നു വെച്ചാൽ മുഖ എന്താ ചർമ്മത്തിനും അതുപോലെ തന്നെ സ്കിൻ കെയർ എന്നുപറയുന്ന ആ ഒരു രീതിയിലോട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ നേച്ചറൽ എന്നു വെച്ചാൽ പ്രകൃതിദത്തമായ കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പ ഷാംപൂ ആയിക്കോട്ടെ എണ്ണകളായിക്കോട്ടെ അല്ലെങ്കിൽ മുഖത്തു പുരട്ടുന്ന ഓരോ മുഖം എന്താണ് വെളുക്കുവാനും ചർമ്മം നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കുവാനും മുഖ കുരുവിനും എല്ലാറ്റിനും ഭയങ്കര ഒറ്റമൂലികളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചുംകൂടി പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിനെ ബിസിനസ്സ് രീതിയിൽ കൊണ്ടു വരികയാണെങ്കിൽ വളരെ നല്ല മെച്ചമുണ്ടായിരിക്കും അത് ഒരു നല്ല ഒരു എന്താ പ്രോഫിറ്റ് നേടാനും അല്ലെങ്കിൽ അതൊരു നല്ല ബിസിനസ്സ് വളരാനും സഹായിക്കുന്നൊരു ഘടകമായി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇത് ഇതിനുപരി പിന്നെ നമുക്ക് ഭക്ഷണം ഭക്ഷണം ഭക്ഷണത്തിൻറെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം എന്നു വെച്ചാൽ ആരോഗ്യമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് ഒരു അറിവ് തന്നെയാണ് അപ്പോൾ അതിനു നമുക്ക് ഇപ്പോൾ ചെറുപയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചുംകൂടി ആൾക്കാർക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് എത്താത്ത കുറേ സാധനങ്ങൾ ഉണ്ടായത് നമ്മുടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കുറേ വിഭവങ്ങളും അല്ലെങ്കിൽ നമുക്ക് കഴിക്കണമെന്നാഗ്രഹിക്കുന്ന നല്ല നല്ല സാധനങ്ങൾ ഔഷധങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അതൊക്കെ നമ്മളുടെ നാട്ടിൽ എത്തിച്ച് അത് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുകയെന്നു പറയുന്നതും വലിയൊരു കാര്യമായിരിക്കും